മലയാള ഭാഷ എന്നത് ശ്രേഷ്ഠ ഭാഷ എന്ന് എല്ലാവരും പറയുന്നെങ്കിലും ശരിക്കും മലയാളം സംസാരിക്കാൻ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും മടിയാണ് എന്താണെന്ന് ചോദിച്ചാൽ മലയാള ഭാഷ അറിയാവുന്നവർ പോലും മലയാളം സംസാരിക്കുന്നില്ല എന്നതാണ് സത്യം അത് ഒരു പക്ഷേ അന്യഭാഷേയുടെ കടന്നുകയറ്റമാണോ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കണം എന്ന വ്യഗ്രത കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല മലയാളം അറിയാവുന്ന മലയാളി പോലും ഇന്ന് മലയാളം സംസാരിക്കുന്നില്ല കുട്ടികളെ മലയാളം സംസാരിക്കേണ്ട എന്ന് തന്നെ അച്ഛനമ്മമാർ പറഞ്ഞു പഠിപ്പിക്കുന്നു കാരണം മാതൃഭാഷ പഠിക്കേണ്ട അവർക്ക് ഇംഗ്ലീഷ് പഠിച്ചാൽ മതി പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് നമ്മുടെ ലാങ്ങ് ഭാഷ ഏതാണോ അന്യഭാഷ എന്നും വിരുന്നുകാരിയാണ് എന്ന് പറയുന്നത് സത്യമാണ് എല്ലാവർക്കും മാതൃഭാഷയാണ് അവരവരുടെ ഭാഷ കേരളത്തിന് മാത്രമാണ് മാതൃഭാഷ പഠിക്കേണ്ട എന്ന് ഉള്ളത് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ മാതൃഭാഷ പഠിച്ചേ പറ്റുകയുള്ളൂ അതിപ്പം തമിഴ്നാടകട്ടെ ആന്ധ്രയാകട്ടെ എവിടെയാണെങ്കിലും അവരുടെ മാതൃഭാഷ പഠിക്കണം പക്ഷേ കേരളത്തിൽ മലയാളം വേണമെങ്കിൽ പഠിച്ചാൽ മതി അങ്ങനെ ഒരു നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ എല്ലാവരും പുസ്തകങ്ങൾ വായിച്ചിരുന്നു പത്രമാവട്ടെ പുസ്തകങ്ങളാകട്ടെ ഇന്നാരും തന്നെ വായിക്കുന്നില്ല അത് ഭാഷയുടെ ഒരു ഭയങ്കര വെല്ലുവിളി എന്ന് തന്നെ പറയാം മലയാളഭാഷയെന്ന് മാത്രമല്ല ഏത് ഭാഷയായിക്കോട്ടെ നമ്മൾ സംസാരിച്ചാൽ മാത്രമേ അതിനു നമുക്ക് അറിവ് അല്ലങ്കിൽ വളർച്ച കിട്ടുകയുള്ളൂ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും മറ്റ് ഭാഷ സംസാരിക്കാനാണ് താൽപ്പര്യം പ്രധാനമായിട്ടും ഇംഗ്ലീഷ് മലയാളികൾ പോലും സംസാരിക്കാത്ത ഭാഷ പിന്നെ മറ്റുള്ളവർ എങ്ങനെയാ സംസാരിക്കുന്നത് വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളെ നമ്മൾ പറഞ്ഞ് തന്നെ പഠിപ്പിച്ച് കൊടുക്കണം നിൻ്റെ മാതൃഭാഷ മലയാളമാണ് മലയാളികളാണോ അത് മലയാളമാണ് എന്ന് തന്നെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം മറ്റ് ഭാഷ നീ പഠിക്കാം അത് നിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ നിൻ്റെ ഭാവിയിലേക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ നീ അന്യസംസ്ഥാനത്ത് പോയി ജോലി ചെയ്യുമ്പോ സംസാരിക്കാൻ വേണ്ടി എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക നിൻ്റെ മാതൃഭാഷയായ മലയാളം നീ പഠിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക എന്ന് തന്നെ കുട്ടികളെ പറഞ്ഞു ശീലിപ്പിക്കുക